ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് എപ്പോഴും എനിക്കൊരു ആദരവാണ് ഉള്ളത് കാരണം ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലാണ് ഞാൻ വിദ്യ അഭ്യസിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു ക്രെഡിറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമുക്ക് പഴയ കാലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് പഴയ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമായിരുന്നു അതായത് ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് ഗുരു കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഗുരുവിനെ അനുസരിച്ച് അനുസരിച്ച് അല്ലെങ്കിൽ അനുകരിച്ച് ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിച്ച് മാതാപിതാക്കൾ ഗുരു ദൈവം എന്ന തത്വം മനസ്സിൽ ഓർത്ത് എടുത്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് ആ കാലത്ത് വിദ്യാഭ്യാസം അറിവിനേക്കാൾ അറിവ് നല്ല രീതിയിൽ കിട്ടിയിരുന്നു അതിനേക്കാൾ ഏറെ കളരി പോലുള്ള പരിശീലനങ്ങൾ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളും കുട്ടികൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മുമ്പോട്ട് വരും തോറും ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ കുറച്ചും കൂടെ പിന്നിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരിക്കലും അദ്ധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ബന്ധം അത് നല്ല രീതിയിൽ തന്നെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ പിൻ തലമുറക്കാർ ആണെങ്കിലും ഒരുപാട് തന്നെ പേടിച്ചിട്ടാണ് അദ്ധ്യാപകരെ എല്ലാം ഒരുപാട് പേടിച്ചിരുന്നു അദ്ധ്യാപകരെ ദൈവമായിട്ടാണ് അവർ കണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ ഒരുപാട് പേടി അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് ഒരു തന്റെ പേരൻറ്സുമായിട്ടുള്ള ഒരു ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം പോലെയാണ് ഇന്നത്തെ കുട്ടികൾ ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ അവരുമായിട്ട് ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ടീച്ചേഴ്സും അതുപോലെ തന്നെ തന്റെ മക്കളായി തന്നെ അവരെ കണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് മാറ്റം ഇന്ന് വന്നിട്ടുണ്ട് അത് കുട്ടികൾക്ക് റിലാക്സേഷനും ഒത്തിരി പഠിച്ച് പഠിക്കാനുള്ളൊരു മൈൻഡും എല്ലാം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കാര്യത്തിലൂടെ അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് എല്ലാം കമ്പ്യൂട്ടറിലാണ് അത് കുട്ടികൾക്ക് ഒരുപാട് സൗകര്യപ്രദമാണ് എന്ത് കാര്യങ്ങളും അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാണ്ട് അത് അതേപടി തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് എപ്പോഴും അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പം പഴയ കാലത്തെ വെച്ച് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എന്തുകൊണ്ടും നല്ലതാണ് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഉണ്ടാക്കി കുത്തിയും കൊന്നും അങ്ങനെ ഒരുപാട് മരണം തന്നെ സംഭവിക്കുന്നുണ്ട് അതും ഒരു സം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ അല്ല വെല്ലുവിളി തന്നെയാണ് അത് കാരണം ഇതെന്ന് പറഞ്ഞെങ്കിൽ നല്ലത് എന്താണെന്ന് തിരിച്ചറിയാണ്ട് കുട്ടികൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അവർ ആരെയും പേടിക്കുന്നില്ല അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കുണ്ട് അത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ് എങ്കിൽ കൂടെയും കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഉന്നതത്തിൽ എത്താനായിട്ട് ഇപ്പോഴുള്ള ഒരു വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ഗുണകരമാണ് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി പഠിക്കാനും എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനും അവരുടെ അവരഅവരുടെത് ആയിട്ടുള്ള ജോലി സാഹചര്യം നിലനിർത്തുവാനായിട്ടും എല്ലാവരെയും ജീവിതം പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളും കൂലിപ്പണിയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ മക്കൾക്ക് അതിനേക്കാൾ നല്ലൊരു ജോലി ഐ ടി യുഗമാണ് നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ് അവർ നേടിയെടുക്കുന്നത്